ഞാനൊരു ഗൈഡായി പ്രവര്ത്തിക്കുന്ന ആളാണ് എ കുറേ കുറേ വര്ഷങ്ങളായിട്ട് ഇതിൻ്റെ ഇതില് നന്നായിട്ട് പ്രവര്ത്തിച്ചു പോരുന്ന ഒരു വ്യക്തിയാണ് ഈ മേഖലയിലേക്ക് ധാരാളം ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നു ഇതിനെ പല പല അതിനെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരു നല്ല ഗൈഡിന് അത്യാവശ്യമായ ചില ഗുണ ഗണങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണ് സ്പെഷ്യലി വരുന്ന ഫാമിലിയായിട്ടും പിന്നെ ബാച്ചിലേർസായിട്ടും വരുന്നവരെ അത് ഗൈഡ് ചെയ്യുന്ന രീതിയും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലും നമ്മൾ എപ്പോഴും ഉത്സുഹരായിരിക്കണം അതുപോലെതെന്നെ അവർക്കു വേണ്ടുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണോ ആവശ്യങ്ങൾ നമ്മൾ നമ്മളെ കൊണ്ട് അവ സംശയപരമായ കാര്യങ്ങളായിരിക്കണം ഒരു പക്ഷേ പിന്നെ അവർക്ക് ഇതെന്താണ് ഈ റിസോർട്ട് ഇങ്ങനെ ഇവിടെ വരാൻ കാരണമെന്താണ് ഇതിൻ്റെ പുറകിലുള്ള കഥകൾ ചിലപ്പോൾ ഒരുമ ഒരുപാട് കഥകൾ ഉണ്ടാകാമായിരിക്കാം ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം അവർ ഇവിടെ നിന്നു പോകുമ്പോൾ ഒരു ഗൈഡെന്ന നിലയിൽ കൂടുതൽ സാറ്റിസ്ഫാക്ഷനായിരിക്കണം നമുക്ക് വരുന്ന കസ്റ്റമേഴ്സ് എപ്പോഴും അവരെ ഹാപ്പിയായിട്ടു പോകുന്ന രീതിയിൽ വേണം നമ്മളെപ്പോഴും അവരോട് പ്രവർത്തിച്ച പ്രവർത്തിക്കേണ്ടത് എങ്കിൽ മാത്രമേ ഒരു ഗൈഡെന്ന നിലയിൽ നമ്മൾ ജി ഒരു വിജയം വരിക്കുകയുള്ളൂ അതുകൂടാതെ തന്നെയും അവർക്ക് ചില സേഫ്റ്റിയായിട്ടുള്ള കാര്യങ്ങൾ അത് പ്രത്യേകിച്ചും അതാണ് ഏറ്റവും വ വലുതാണ് വലുതായിട്ടുള്ള കാര്യം ഒരു ഗൈഡിനെ സംഭവിച്ചത് സംബന്ധിച്ച് ഏറ്റവും ഇംപോർട്ടൻറ്റായ കാര്യം വരുന്ന ടൂറിസ്റ്റുകളെ നമ്മൾ സേഫ്റ്റി സേഫ്റ്റി മെഷേഴ്സിനെ കുറിച്ചും അതിലുള്ള കാര്യങ്ങളെക്കുറിച്ചും പിന്നെ എപ്പോഴും പിന്നെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ നമ്മളെപ്പോഴും ഉത്സുകരായിരിക്കണം അതിൽ ഒരു ദാക്ഷണ്യമോ എന്തെങ്കിലും വരുത്താനോ ഇടവരുത്താതിരിക്കുക കാരണം ഈ ടൂറിസ്റ്റുകൾക്ക് ആദ്യമായി വരുന്നവരായിരിക്കാം അവർക്ക് ഇതിനെക്കുറിച്ചോ ഈ മേഖലയിൽ ഈ പ്രദേശത്തെക്കുറിച്ചോ ഇവിടെ വൻ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചോ ഒന്നും ഒരു അറിവ് ഉണ്ടായിരിക്കുകയില്ല അതിനാൽ നമ്മൾ ഈ ഗൈഡായിട്ട് പ്രവർത്തിക്കുന്നവർ ആ ഈ വരുന്ന ടൂറിസ്റ്റിനെ പിന്നെ നമ്മുടെ സ്ഥലത്തേക്ക് വരുന്നപ്പോൾ തൊട്ടുള്ള അവരെ ഈ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇവിടെ ഇന്നയിന്ന കാര്യങ്ങളുണ്ട് എന്നെല്ലാം പറഞ്ഞ് അവർക്ക് വ്യക്തമായ ഒരു ഐഡിയ ആദ്യം കൊടുത്തിട്ട് വേണം അവിടെ ചിലപ്പോൾ പല പല ത് പിന്നെ ഇത് ബോട്ടിംഗ് സർവ്വീസ് ഉണ്ടായിരിക്കാം അതിനെ കുറിച്ച് ഫിഷിങ് സർവ്വീസ് ഇതെല്ലാം ഒരു പിന്നെ ഫുഡ്ഡിനെ കുറിച്ചും എല്ലാം ഒരു ഒരൈഡിയ ആദ്യമേ അവർക്ക് കൊടുക്കണം പിന്നെ മാക്സിമം അവരെ എൻജോയ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളെയും എല്ലായിടത്തും ഉൾപ്പെടുത്തുവാനും എല്ലാ എല്ലാ മേഖലയിലും കൊണ്ടു പോകുവാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ എന്തുവാണ് ഇതൊക്കെയാണ് ഒരു ഗൈഡിനെ കുറിച്ച് ഒരു ഗൈഡിനുണ്ടായിരിക്കേണ്ട പ്രത്യേക ഗുണങ്ങൾ അതുകൂടാതെ അതുകൂടാതെ പല പല ഇതു പിന്നെ ഇംപോർട്ട വരുന്ന സേഫ്റ്റിയായിട്ടു നമ്മൾ ഇംപോർട്ടൻറ്റ് ആയിട്ടുള്ള കാര്യമെന്നു പറഞ്ഞാൽ സേഫ്റ്റി മെഷേർസാണ് അതിനെക്കുറിച്ചും അവരെ ബോധവത്ക്കരിക്കേണ്ടതാണ് പിന്നെ വള്ളത്തിൽ ഇവിടെ ഈ പ്രദേ നിങ്ങളുടെ റിസോർട്ടിൻ്റെ സമീപത്ത് ബോട്ട് യാത്രയുണ്ട് വള്ളങ്ങളിൽ പോകുന്നവരുണ്ട് അങ്ങനെ ഈ എല്ലായിടത്തും അതുപോലെതന്നെ പല പല ഡിഫറൻറ്റായിട്ടുള്ള ഫുഡ് ഐറ്റംസുകളുണ്ട് ഇതിനെക്കുറിച്ചും അവരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം ഒരു ഗൈഡിന് ഉണ്ടായിരിക്കേണ്ടതാണ് അതുപോലെതന്നെ ഇതിനടുത്ത പ്രദേശങ്ങളിലും സമീപ പ്രദേശങ്ങളിലും പല ത ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട് അവർക്ക് അവിടെ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അതുകൂടി നമ്മൾ അവരുടെ അന്വേഷിച്ച് ആ ആവശ്യങ്ങൾ കൂടി നമ്മൾ നിർവ്വഹിച്ചിട്ടു വേണം അവരെ സന്തോഷമായി അവരുടെ ത് ഈ ന്ന വരുന്ന സന്തോഷമായിട്ട് അവരെ പറഞ്ഞു വിടേണ്ടത് ഇതൊക്കെയാണ് ഒരു ഗൈഡിൻ്റെ ഒരു ഉത്തരവാദിത്വം ഒരു ഗൈഡിൻ്റെ ചുമതല റസ്പോൺസിബിലിറ്റി എന്നു പറയുന്നത് ഇതു തന്നെയാണ് ഇതൊക്കെയാണ് നമ്മൾ എത്ര ടൂറിസ്റ്റിനെ എത്രമാത്രം ഹാപ്പിയാക്കുന്നോ എത്രമാത്രം സംതൃപ്തരാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നോ അതാണ് ഒരു ഗൈഡിൻ്റെ ഏറ്റവും വലിയ റെസ്പോൺസിബിളിറ്റി കൂടാതെ പിന്നെ പല പല വിനോദങ്ങളിൽ ഏർപ്പെടുത്തുക പിന്നെ അതുപോലെതന്നെ നെ നൽ താമസ സൗകര്യങ്ങളൊരുക്കുക അവ് അങ്ങനെ ആവശ്യമുള്ളവരും വരാറുണ്ട് അതുപോലെ താമസ സൗകര്യങ്ങൾ വേൺ വേണ്ടുന്നവർക്ക് അത് ഏർപ്പാടാക്കി കൊടുക്കുക ഭക്ഷണസാധനങ്ങളെർപ്പാടാക്കി കൊടുക്കുക പിന്നെ അതുമാതിരിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് എത്രയും നന്നായിട്ട് ചെയ്യുന്നോ അത്രയും നന്നായിട്ട് ചെയ്യുകയെന്നതാണ് ഒരു ഗൈഡിനെ സംബന്ധിച്ചിടത്തോളം നന്നായി പ്രവർത്തിക്കുന്ന ഒരാൾ ചെയ്യേണ്ടത് പിന്നെ വരുന്ന ടൂറിസ്റ്റിൻ്റെ സേഫ്റ്റി സേഫ്റ്റി മെഷേഴ്സ് അതെപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് അലേട്ടായിരിക്കണം അതിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്താതെ അത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്നു നോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും വരികയാണെ തന്നെ എന്തെങ്കിലും അപകട സാധ്യത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതു മുന്നറിയിപ്പ് നൽകേണ്ടതാണ് ഇതെല്ലാം